ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് വേണ്ടി പാചകം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു അവസരം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ മാക്സിമം പോയാൽ ഒരു പത്ത് ഇരുപത് പേർക്ക് ഉള്ള പാചകം ചെയ്യേണ്ട അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളൂ അതെന്നു വച്ചാൽ ഈ മെയിൻ ആയിട്ട് ഈ വീടു പണിയുടെ ഒരു സമയത്തു തന്നെ വാർക്കയുടെ ഒക്കെ ആ സമയത്ത് വന്നിട്ടുള്ള ഒരു ഇതേ ഉള്ളു അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ അവർക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ട് കഞ്ഞിയും ചമ്മന്തിയും വയ്ക്കുക ഉച്ച ആകുമ്പോഴേക്കും നെയ്യ്ച്ചോറും ചിക്കൻ ഒക്കെ ആക്കുക ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമയം കിട്ടാതെ അത് നല്ലൊരു രസമായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല ആരും സഹായിക്കാൻ ഇല്ലെങ്കിലും അത് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല നല്ലൊരു രസം ഒരൂ നമ്മുടെ വീടാണല്ലോ പണിയുന്നത് അപ്പോൾ അതിന്റെ ഒരു സന്തോഷത്തോടുകൂടി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കാൻ നല്ലൊരു അവസരം കിട്ടി അതിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇതുവരെ ഒരിത് ലഭിച്ചിട്ടില്ല ലഭിച്ചാലും ഞാൻ ചെയ്യും എനിക്ക് അതിൽ വിശ്വാസുണ്ട്